ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു അടുത്തയാഴ്ച എൻ്റെ കസിൻ്റെ കല്യാണമാണ് കല്യാണം ഇവിടെയും പിന്നെയൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ദുബായില് ലൈഫ് ടൈം കിട്ടുന്നൊരു ചാൻസാണ് ദുബായില് പോയിട്ടൊരു വെഡിങ് അറ്റൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അപ്പോള് എന്നോട് എൻ്റെ പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസെന്നുള്ള കാര്യത്തില് ഐഡിയയില്ല എക്സ്പയർ ആകാറായിട്ടുണ്ടോ ഇല്ലയോ അപ്പോള് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പാസ്പോർട്ട് ഓഫീസില് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്കോ അതിൻ്റെ സ്റ്റാറ്റസൊന്ന് എന്താണെന്ന് ഒന്നറിയണം അതൊന്നും കുഴപ്പമില്ലാതിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ദുബായില് പോയിട്ടൊരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാം ഇങ്ങനെയൊരു ചാൻസ് വേറെ എവിടെയും കിട്ടാൻ വഴിയില്ല ഇതും അവരധികം ആൾക്കാരെയൊന്നും കൊണ്ടുപോകുന്നില്ല വീട്ടിലെ കുറച്ച് നമ്മുടെ അത്രയും അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുന്നത് അതിലൊരാളാവാൻ പറ്റിയത് എന്തായാലും എൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെയൊരു ചാൻസ് വഴി നമുക്ക് ദുബായിലൊന്ന് പോയി വരാമല്ലോ അല്ലാതെ വേറെ വഴിക്കൊന്നും നമുക്ക് ദുബായിൽ പോകാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല ആ പാസ്പോർട്ടിന് സ്റ്റാറ്റസ് ഓക്കെ ആയാല് മതിയായിരുന്നു അങ്ങനെയാണെങ്കില് എന്തായാലും ഞാനൊന്ന് ദുബായ് കണ്ടിട്ട് വരും